ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ യുവാക്കൾ ജോലിക്കായി തിരഞ്ഞെടുക്കുന്നത് ദുബായ് പോലെയുള്ള രാജ്യങ്ങളാണ് അവർ പ്രവാസ ജീവിതമാണ് പ്രാധിനിധ്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറഞ്ഞിട്ടു പോലും പഠിക്കുവാനും ജോലിക്കുമായി പുതുതലമുറ പുറത്തേക്കാണ് പോകുന്നത് ഇപ്പം പണ്ട് ധനിക കുടുംബത്തിൽ മാത്രം കണ്ടു വരുന്നൊരു പ്രവണതക്ക് ആഗോളീകരണത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ആക്കം ഏറി മധ്യവർഗ സമൂഹത്തിൽ നിന്നും താഴ്ന്ന വരുമാനമുള്ള വീടുകളിൽ നിന്നു പോലും ഉദാരവായ്പകളുടെ സഹായത്തോടെ കുട്ടികൾ പുറത്തേക്ക് പോകാൻ ആരംഭിച്ചു അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മികച്ചൊരു ജീവിതസാഹചര്യം പിന്നെ ഒരു ജോലി ഒറ്റവാക്കിൽ പറഞ്ഞാൽ പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടിയാണ് അവർ പോകുന്നത് പെട്ടെന്ന് പണമുണ്ടാക്കാനും മെച്ചപ്പെട്ട ജീവിതനിലവാരം കരസ്ഥമാക്കുവാനും വേണ്ടീട്ട് അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർക്ക് അവരുടെ യോഗ്യത യോഗ്യതക്കൊത്തവണ്ണമുള്ള ശമ്പളം തൊഴിൽ എന്നൊന്നും നാട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല സർക്കാർ ജോലിക്കായി ഇനി പഠിക്കുകയാണെങ്കിൽ തന്നെ അവിടെ പിൻവാതിൽ നിയമനം സംവരണം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാത്തിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല ഇത് കാത്തിരുന്ന് മൂക്കിൽ പല്ലുമുളക്കുമെന്നല്ലാതെ വേറൊരു പ്രത്യേകതയും കണ്ടുവരുന്നില്ല ഇനി എന്തെങ്കിലും സംരംഭം തുടങ്ങാമെന്നു വെച്ചാൽ പ്യൂൺ മുതൽ മുകളിലെ ഏമാനു വരെ കൈമടക്കു കൊടുക്കണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിവ് കൊടുക്കണം ഇല്ലെങ്കിൽ പിറ്റേന്നു തന്നെ സ്ഥലത്തു കൊടികുത്തലായി അങ്ങനെയുള്ള പ്രശ്നങ്ങളായി ഇനി എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഒരു സംരംഭം തുടങ്ങി പിഴച്ചു പോകാമെന്നുവെച്ചാൽ അഴിമതി ഉദ്യോഗസ്ഥ ദുഷ്പ്രബുദ്ധം തൊഴിലിടങ്ങളിൽ പാര വെയ്പ്പ് സമൂഹത്തിൻ്റെ അനാവശ്യ ഇടപെടൽ പീഡനം അപകടം എന്നിങ്ങനെ ഒരുപാടുണ്ട് കാര്യങ്ങൾ സ്വാഭാവികമായി ഇതൊന്നും ഇല്ലാത്ത ഇടത്തേക്ക് ചേക്കേറാൻ ചെറുപ്പക്കാർ ശ്രമിക്കില്ലേ അതു തന്നെ അതിനുള്ള ഉദാഹരണമാണ് ഗ്രാമങ്ങളിൽ പോലും കൂണുപോലെ മുളച്ചു പൊന്തുന്ന ചെറുപ്പക്കാരെ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ തന്നെ ഒരുപാട് നമ്മളെ മുന്നിൽ കണ്ടു വരുന്നുണ്ട്